ദിസ് കോള് ഇസ് നൗ ബീങ്ങ് റെകോര്ഡെഡ് ഹലോ ആ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ മഴയും ഭയങ്കര ഇവിടെ ഭയങ്കര ഇവിടെ ലേബേര്സ് ബഹളം വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം പ്രശ്നമാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നും ശമ്പ കൃത്യമായിട്ട് ശമ്പളം പോലും കിട്ടുന്നില്ല ഞങ്ങള് ഇപ്പോൾ എത്ര നാളായിട്ട് വളരെ വളരെ നല്ല രീതിയിൽ അവിടെ പോയി ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുവാണ് രാവിലെ ഒരു എട്ട് മണിക്ക് കയറിക്കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് വെയിലും മഴയും ഒന്നും നോക്കാതെ പക്ഷേ ഓരോ ദിവസവും ഞങ്ങൾക്ക് പൈസ വേണ്ടേ വീട്ടിലെ കാര്യങ്ങൾ നടത്തണ്ടേ അപ്പോൾ പിന്നെ ഓരോ രണ്ട് ദിവസം പെൻഡിങ്ങ് ആവുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ഇവിടെ കണ്ടിട്ട് ഇപ്പം എത്ര നാളായി രണ്ട് ദിവസത്തിൽ പരിഹാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരി ആവുന്നത് ആ പൈസ കിട്ടിയോ നാളെ പൈസ പൈസ കിട്ടി നാളെ മുതൽ ഞങ്ങൾ പണിയാന് വരില്ല അതുപോലെ തന്നെ ഞങ്ങൾ എക്സ്ട്രാ വര്ക്ക് എക്സ്ട്രാ വര്ക്ക് ഞങ്ങൾ ഇവിടെ എക്സ്ട്രാ പണിയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് കാരണം ഇവിടെ പണിക്കാർ കുറവാണ് മേസ്തിരിമാർ ആവശ്യത്തിനില്ല മെക്ക്യാഡർമാരില്ല ഞങ്ങൾ ഒരു മൂന്നാല് ആൾ ഞങ്ങൾ മേസ്തിരിമാർ മേസ്തിരിമാർ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ മെക്കാഡർമാരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് പണിക്കാർ ഇല്ല പണിക്കാർ ഇല്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്

പിന്നെ വേറെ പ്രശ്നം എന്നുവെച്ചാൽ നിങ്ങൾ ഇവിടെ വരെ വരാനുണ്ട് ഒരു പ്ലാനിന് ചെറിയൊരു മാറ്റം ഉണ്ടെന്നെങ്ങാണ്ട് പ് ഹൗസ് ഓണര് വന്ന് പറഞ്ഞിട്ട് പോയി അവിടെ അത് ഇവിടെ എന്തോ പൊളിച്ച് ആ മൂന്നാം നിലയുടെ അവിടെ പിന്നെ റൂമിന്റെ അവിടെ എന്തോ പൊളിച്ച് പണിയാനാണെന്നോ അവിടെ ഷെല്ഫ് വേണം എന്നിങ്ങനെ ഹൗസ് ഓണര് വന്ന് പറഞ്ഞിട്ട് പോയി അപ്പം അത് അതിന് കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല വേറെ വേ വേറെ പണി വേറെ പണി എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പോൾ ഇവിടെ തേപ്പുണ്ട് മേളിലെ വാര്പ്പെല്ലാം കഴിഞ്ഞു എനി തേക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പം അതിന് ആവിശ്യത്തിന് ഇപ്പോൾ സിമെന്റ് കുറവാണ് അന്ന് വാര്പ്പിന് നല്ല രീതിയിൽ സിമെന്റ് എടുത്തതുകൊണ്ട് സിമെന്റ് കുറവാണ് അപ്പം സിമെന്റ് കൂടെ എങ്ങനെ എങ്കിലും ഒരു നൂറ് ചാക്ക് എത്തിക്കണം തേക്കാനായിട്ട് മാത്രം അത് ഞങ്ങൾ അതല്ലെന്നേ ഞങ്ങൾ ഞങ്ങൾ പണിയാന് നിൽക്കുന്ന ഞങ്ങൾ പണി എടുക്കണോ അതോ നാട്ടുകാരെ ഞങ്ങൾ വിളിക്കണോ ഞങ്ങൾ എങ്ങനെയാണ് സിമെന്റ് ഇറക്കുന്നത് നിങ്ങളെ കൊണ്ട് സിമെന്റ് ഇറക്കിക്കൂടേ മൈകാഡ് സാധനം മെറ്റീരിയൽ മെറ്റീരിയൽ ഞങ്ങൾ ഇറക്കണോ ഞങ്ങൾ അതിന്റെ ആവശ്യമുണ്ടോ മെറ്റീരിയൽ ഇറക്കേണ്ട ആവശ്യം ഉണ്ടോ ഞങ്ങൾ ആദ്യമേ നിങ്ങൾ രണ്ട് ദിവസത്തെ ശമ്പളം താ എന്നിട്ട് നിങ്ങൾ അമ്പത് രൂപയുടെ ബാധ്യതയുടെ കാര്യം സംസാരിക്ക് ആ എന്നാൽ ശരി എനിക്കിതൊന്നും കേൾക്ക ആ എന്നാൽ ശരി